ഞാന് നൃത്തം ചെയ്തിട്ടുണ്ട് വിവാഹങ്ങളില് ഒരു പ്രാവശ്യം നൃത്തം ചെയ്തിട്ടുണ്ട് അതു നല്ലൊരനുഭവമായിരുന്നു എൻ്റെ ആങ്ങളയുടെ കല്യാണത്തിനു തന്നെയാണ് ഞാന് നൃത്തം ചെയ്തത് സ്റ്റേജേല് ഞാനും എൻ്റെ കസിൻസും കൂടെക്കൂടി നൃത്തം നേരത്തെ തന്നെ പഠിച്ചെടുക്കുകയും ഞങ്ങള് നൃത്തം ചെയ്യുകയും ചെയ്തു എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒന്നായിരുന്നു നേരത്തെ പഠിച്ച് അത് ആ ഒരു പ്രോഗ്രാമിന് ഏറ്റവും കൂടുതല് നല്ല രീതിയില് യോജിച്ചുപോകുന്ന ഒരു പരിപാടി കൂടിയായിരുന്നു അങ്ങനെയുള്ള ആഘോഷങ്ങൾക്കിടയിലുള്ളൊരു നൃത്തം വെറും ആഘോഷങ്ങളല്ലാതെ ആഘോഷങ്ങൾക്കു കൂടുതല് മാറ്റുകൂട്ടാനായിട്ട് ഞങ്ങളുടെ നൃത്തം വളരെയേറെ സഹായിച്ചു നല്ലതായിരുന്നെന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് നല്ലൊരനുഭവമായിരുന്നു നൃത്തം എന്നു പറയുന്നതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കണ്ടിരിക്കുന്ന ആസ്വദിക്കുന്ന എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റുന്നതുമായ ഒരു കലാരൂപമാണല്ലോ അതിപ്പോള് ഏതു രീതിയിലുള്ള നൃത്തമാണെങ്കിലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒന്നാണ് അങ്ങനെ നൃത്തം ചെയ്തിട്ടുണ്ട് പിന്നെ കൊറിയോഗ്രാഫറുടെ അടുത്തുനിന്നു നൃത്തം പഠിച്ചിട്ടൊന്നും ഇല്ല തനിയെ ഫോണിലോ യു ട്യൂബിലോ ഒക്കെ കണ്ട് സ്റ്റെപ്പുകളൊക്കെ കണ്ടുമനസ്സിലാക്കി തനിയെ പഠിക്കുന്ന രീതിയാണ് ഞാന് പ്രാവർത്തികമാക്കിയിട്ടുള്ളത് അധികം അല്ലാതെ അവരുടെ അടുത്തുപോയി നൃത്തമൊന്നും പഠിച്ചിട്ടൊന്നുമില്ല അങ്ങനെ ഒരനുഭവം ഇതുവരെ കിട്ടിയിട്ടില്ല ഒരാളുടെ അടുത്തു പോയി പഠിക്കാൻ പിന്നെ ചെറുപ്പ കാലങ്ങളില് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നൃത്തം അന്നു പഠിച്ചിട്ടുണ്ട് ഒരു അഞ്ചു വർഷത്തോളം നൃത്തം പഠിച്ചിട്ടുണ്ട് ആനിവേഴ്സറി വാർഷികങ്ങളിലൊക്കെ നിന്ന് നൃത്തം ചെയ്യാനൊക്കെ എനിക്കിഷ്ടമായിരുന്നു അങ്ങനെ നൃത്തം ചെയ്തിട്ടുണ്ട് ടീച്ചർമാര് ഡാൻസ് ടീച്ചേഴ്സ് വന്ന് പഠിപ്പിക്കുകയും അങ്ങനെ ചെയ്തിട്ടുണ്ട് അതും വളരെ നല്ലൊരു അനുഭവമാണ് ഇന്നും മനസ്സിൽ ഓർത്തിരിക്കുന്ന ഒന്നാണ് അങ്ങനെ നൃത്തം ചെയ്യുക എന്നു പറയുന്നത് ഒരിക്കലും മറക്കാനാവാത്ത അനുഭവമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ നൃത്തം എന്നു പറയുന്നത് എൻ്റെ ഒരു കാഴ്ചപ്പാട് വളരെ എളുപ്പമുള്ള ഒരു കലയാണ് എന്നാൽ അത്ര എളുപ്പമാണെന്നു പറയാൻ പറ്റില്ല എന്നാൽ ബുദ്ധിമുട്ടു ബുദ്ധിമുട്ടുകളുണ്ടോ എന്നു ചോദിച്ചാല് ബുദ്ധിമുട്ടുകളുണ്ട് നമുക്കു നൃത്തം ചെയ്യുമ്പോൾ ഒരിടത്തുനിന്നു ചെയ്യേണ്ട ഒന്നല്ല അതിന് അതിന്റേതായ രീതിയില് ഒരു വടിവൊത്ത ശരീരവും ഒരു മുദ്രകളും ഒക്കെ കറക്റ്റാവണം എന്നാല് മാത്രമേ നൃത്തം വൃത്തിയായി ചെയ്തു എന്നു നമുക്കു പറയാൻ കിട്ടത്തുള്ളൂ നൃത്തം എന്നു പറയുന്നത് ഒരു ഒരു കലാരൂപം തന്നെയാണ് അപ്പോഴാ കല അത് ആസ്വദിച്ചുപോകണമെങ്കില് അതിൻ്റേതായ രീതിയിൽ അതു ചെയ്യണം കൈകള് മുദ്രകളെല്ലാം കറക്റ്റായി വരണം പാട്ടിനൊപ്പം നൃത്തം ചെയ്തുപോകണം അങ്ങനെയങ്ങനെ ഒരുപാട് കാര്യങ്ങള് അതില് ശ്രദ്ധിക്കേണ്ടതുണ്ട് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതായിരിക്കും ഒരു നൃത്തത്തിൻ്റെ ഒരു ശാരീരിക ഒരു വടിവ് ഒടിവൊക്കെ നമുക്ക് ശരീരത്തിന് ഫ്ലെക്സിബിളായിട്ടുള്ള ശരീരം ഇല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്കു നൃത്തം എന്നു പറയുന്നതു ബുദ്ധിമുട്ടു തന്നെയാണ് പിന്നെ എനിക്ക് നൃത്തം പഠിക്കാനങ്ങനെ ഒരുപാട് സമയമൊന്നും എടുക്കാറില്ല ജസ്റ്റൊന്ന് വീഡിയോയിലൊന്നു കണ്ടുകഴിഞ്ഞാല് ഒന്ന് സ്റ്റെപ്പിടാവുന്നതേ ഉള്ളു അതിപ്പോള് ഏതു പാട്ടാണെങ്കിലും സ്പോർട്ടിലാണെങ്കിലും നൃത്തം ചെയ്യാൻ കഴിവുണ്ട് പഠിച്ചിട്ടുംകൂടെ ഉള്ളതുകൊണ്ട് സ്റ്റെപ്പുകളൊക്കെ ഈസിയായിട്ട് കിട്ടും പിന്നെ ബ്രേക്ക് ഡാൻസ് പോലെയാണ് സിനിമാറ്റിക് ഡാൻസൊക്കെ ആണെങ്കില് എളുപ്പമുണ്ട് സ്റ്റെപ്പിടാന് പറ്റും അതേ സമയം ക്ലാസിക്കൽ ഡാൻസ് അത്ര ഞാൻ പഠിച്ചിട്ടില്ല താല്പര്യം ഉണ്ട് പക്ഷെ പഠിക്കാന് പറ്റിയിട്ടില്ല അങ്ങനെ ക്ലാസിക്കൽ ഡാൻസ് കുറച്ചുംകൂടെ താൽപര്യമായിരുന്നു കണ്ടിരിക്കാനും ആസ്വദിക്കാനും ഒക്കെ താൽപര്യമുള്ള ഒന്നാണ് മോഹിനിയാട്ടം ഭരതനാട്യം ഇങ്ങനെയുള്ള ചില ഡാൻസുകള് കുടുംബാഗങ്ങൾക്കു മുന്നില് ഇനിയും നൃത്തം ചെയ്യാൻ എനിക്കൊരുപാട് ഇഷ്ടം തന്നെയാണ് ഇങ്ങനെയുള്ള പരിപാടികള് ഫങ്ഷൻസൊക്കെ വരുമ്പോള് ഡാൻസ് ഉണ്ടെങ്കില് ഒരു ഒരു ഓളമാണ് ആ ഒരു പരിപാടിക്ക് അപ്പോള് അങ്ങനെയുള്ള ഒരു പരിപാടികളിലൊക്കെ ഡാൻസീയ്യാന് എനിക്കിഷ്ടം തന്നെയാണ് കുട്ടികളെ പഠിപ്പിക്കുന്നുമുണ്ട് കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട് ഡാൻസ് അങ്ങനെയൊക്കെ പല രീതിയില് ഡാൻസെന്നു പറയുന്നത് എനിക്ക് ഏറ്റവും ഏറെ മറ്റേതു കലാരൂപങ്ങളെക്കാളിലും ഇഷ്ടമുള്ള ഒന്നാണ് അതിൻ്റെ ആ ഒരു ഡ്രസ്സ് കോസ്റ്റ്യൂം ആയിക്കോട്ടെ കൊറിയോഗ്രാഫി ആയിക്കോട്ടെ എല്ലാം നല്ലതായിവന്നാൽ ഒരു തീമിനോട് ബേസേയ്തിട്ട് ഡാൻസ് വന്നു കഴിഞ്ഞാല് വളരെ ഭംഗിയുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് ആ ഒരു കലാരൂപം എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഒന്നാണ്